ഞാൻ മത്സ്യബന്ധനം പഠിച്ചിട്ടില്ല എനിക്ക് മത്സ്യബന്ധനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അറിവുമില്ല നമ്മൾ മുതിർന്നവരിൽ നിന്ന് പഠിക്കുന്നത് കാര്യമെന്താണെന്നുവെച്ചാൽ എൻ്റെ ഇവിടെ കടലോ പുഴയോ അങ്ങനെ വലിയ മത്സ്യബന്ധനത്തില് ഏർപ്പെടാൻ പറ്റിയ സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു ഞങ്ങളിവിടെ മെയിനായിട്ടുള്ളത് കന്നുകാലികളും വളർത്തുന്ന മൃഗങ്ങളുമാണ് പിന്നെ പച്ചക്കറിക്കൃഷിയും പച്ചക്കറിക്കൃഷി ഇങ്ങനെയുള്ള മുതലായ കാര്യങ്ങളാണ് നമുക്കാദ്യമേയുള്ളത് മത്സ്യബന്ധനത്തെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല ആകെ ഇവിടെ മത്സ്യബന്ധനത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നത് ആദിവാസി സമൂഹങ്ങളിൽ കുറച്ച് പേര്ക്കാണ് പിന്നെ ആകപ്പാടെ നമ്മൾ ഞങ്ങൾ ചെയ്തുവരുന്ന മത്സ്യബന്ധനമെന്ന് വെച്ചാൽ ഞണ്ടിനെ പിടിക്കുകയാണ് അതും ഇപ്പോള് നിയമവിരുദ്ധമായതുകൊണ്ട് നമ്മളത് ചെയ്യാറില്ല നമ്മളത് ചെയ്യുന്നത് നമ്മൾ പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്നതാണ് നമ്മളാകെ ചെയ്തിട്ടുള്ളത് അതാണെങ്കിൽ ചെയ്യാൻ നോക്കി പരാജയപ്പെടുകയാണ് ചെയ്തത് അതും കൂട്ടുകാരോടൊപ്പം ചുമ്മാതെ സമയം ചെലവാക്കാനായിട്ട് മാത്രം ചെയ്ത കലപരിപാടിയാണ് മീൻ പിടിക്കാനായിട്ട് കുറേ സമയമെടുക്കുകയും മീൻ പിടിക്കുന്നതെങ്ങനെയാണെന്ന് അറിയുകപോലുമില്ല